ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ സമകാലിക പരിപാടി അല്ലെങ്കിൽ വാർത്തയിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നെന്മാറ വല്ലങ്ങി വേല നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുമ്പോൾ ഏറ്റവും വേല സീസണൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വേല എന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ട് മൂന്നു ദിവസത്തെ പരിപാടിയാണ് അതിലെല്ലാ ദിവസവും ഏറ്റവും ഇത് ആനയൊക്കെ ഉണ്ടാവും എന്നാലും ഏറ്റവും വലിയ സംഭവം വെടിക്കെട്ട് തന്നെയാണ് അത് മൂന്നുദിവസമുണ്ടാവും തലേന്ന് ഉണ്ടാവും മൂന്നുദിവസം ലാസ്റ്റ് ദിവസമാണ് ശരിക്കുമുള്ള വെടിക്കെട്ട് അപ്പോൾ രണ്ട് ദേശക്കാരാണ് നെന്മാറയും വല്ലങ്ങിയും രണ്ട് ദേശക്കാരാണ് രണ്ട് ദേശക്കാർ തമ്മിൽ ഉള്ള ഒരു ഫൈറ്റ് കൂടിയാണ് ഈ വെടിക്കെട്ടെന്ന് പറയണത് അപ്പോൾ ആരുടെ വെടിക്കെട്ടാണോ ഏറ്റവും ബെസ്റ്റ് അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു ഫയർ വർക്ക് കൂടിയാണ് ഈ വെടിക്കെട്ടെന്ന് പറയണത് അപ്പോൾ ഇവര് ഒരു എല്ലാവരും ആ ഒരു ദേശക്കാര് തമ്മില് പിരിച്ച് എടുക്കണ പൈസ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫയർ വർക്കായിരിക്കും അതും വേൾഡ് ബിഗ്ഗെസ്റ്റ് ഫയർ വർക്ക് നടക്കണ വേലയാണ് നെന്മാറ വല്ലങ്ങി വേല ആ ഫയർ വർക്കുതന്നെയാണ് ഏറ്റവും ആകാംഷയോടെ പത്രത്തിലാണെങ്കിലും അതേപോലെ ആ എല്ലാവിടെയും നിറഞ്ഞ് നിൽക്കുന്ന ന്യൂസില് നിറഞ്ഞ് നിൽക്കുന്ന വെടിക്കെട്ടിലൊന്നാണ് നെന്മാറ വല്ലങ്ങി ദേശത്തിൻ്റെ വേലയും വെടിക്കെട്ട് എന്ന് പറയണത് അത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരേയും ആകർഷിക്കാനും പല സ്ഥലത്ത് നിന്നും അവിടെ വെടിക്കെട്ട് കാണാൻ ആൾക്കാര് വരാറുണ്ട് പുറത്തുനിന്നുവരെ കേരളത്തിന്ന് പുറത്തുനിന്ന് വരെ പലരും ഇവിടെ വരാറുണ്ട് വേലയിൽ പങ്കെടുക്കാനും വെടിക്കെട്ട് കാണാനും മറ്റും